ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളെ എന്താ ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കണക്ഷൻ കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഞാനപ്പം എന്താ ബ്രോഡ്ബാൻ്റ് എന്നു പറയുന്ന കണക്ഷന് അപ്പം എനിക്ക് ഒരാവശ്യമായി വരുന്ന സാഹചര്യമാണിപ്പോൾ അപ്പോൾ ആ നെറ്റ് ഇപ്പോൾ നിങ്ങൾ ഏതാണ് അവൈൽ ഏതൊക്കെ സിമ്മാണ് അവൈലബിൾ ജിയോ പിന്നെന്താണ് വി ഐ ഒക്കെ ഉണ്ടാകുമോ അപ്പം ഇനി എവിടെയും റേഞ്ചില്ലല്ലോ ആ റേഞ്ചിൽ വരാൻ ഇപ്പം ഏതൊരു മുക്കും മൂലയിലും ഇപ്പം റേഞ്ചില്ലാത്തവസ്ഥയാണ് അപ്പം ഈ വർക്ക് ഫോമിന് വർക്ക് വർക്ക് ഹോമിനെങ്ങാനും ഇപ്പം ഇപ്പം നിങ്ങൾ എന്താ ബ്രോഡ്ബാൻ്റ് എന്നു പറയുന്ന കണക്ഷൻ എനിക്ക് അത്യാവശ്യമാണ് അപ്പം അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരിക അതെങ്ങനെ മാസത്തിലാണോ അടക്കേണ്ടത് വർഷത്തിലാണോ വീക്ക് എൻ്റിലാണോ അത് അടക്കേണ്ടത് അതിപ്പം നിങ്ങൾ വന്ന് പെരിയൊന്ന് ഫിറ്റ് ചെയ്തു തരുമോ അതു കഴിഞ്ഞ് ഞങ്ങൾ ആൾക്കാർ വന്ന് ആൾക്കാരായിട്ട് വരുമോ നിങ്ങൾ എങ്ങനെ അതിൻ്റെ അവസ്ഥ അതു കഴിഞ്ഞിപ്പം അതിപ്പം എങ്ങനെയെങ്കിലും അത് എന്താ നെറ്റ് കിട്ടി നെറ്റ് എത്ര ഉണ്ടാകും നെറ്റിപ്പം അതിൻ്റെ കണക്ഷനൊക്കെ നല്ല കിട്ടുന്നുണ്ടാകും ഇത് സാഹചര്യം എന്നു പറയുന്നത് ഇപ്പം ഏതു സിമ്മിനിപ്പം നെറ്റില്ലാത്തൊരവസ്ഥയാണ് അതു കൊണ്ടിപ്പം സിമ്മിലൊക്കെ നെറ്റ് ഉണ്ടാകുമോ ഇപ്പം അപ്പം അതിൽ അതിലിപ്പം നല്ലൊരു എന്താ ജിയോലോ അങ്ങനെയാണെങ്കിൽ ഇപ്പം അതിൽ നല്ലത് ഉണ്ടാകുക അപ്പം റേറ്റിംഗൊക്കെ എങ്ങനെയെങ്കിലും ഈ സാധാ മാസത്തിൽ നമ്മൾ ഫോണിൽ എന്താ സാധാ കണക്ഷൻ കൊടുക്കുന്നതിന് പേയ്മെൻറ് കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കുമോ ഈ എന്താ ബോഡ്ബാൻ്റെന്നു പറയുന്ന കണക്ഷന് നമ്മുടെ എന്താ വർക്ക് ഹോമിനു വേണ്ടി നമ്മൾ വീട്ടിൽ വെക്കുമ്പം അതിൻ്റെ റേറ്റൊക്കെങ്ങനെ വരും അന്ന് അപ്പോൾ ബ്രോഡ്ബാൻഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ വെച്ചു തരിക വീട്ടിൽ വന്ന് വെച്ചു തരുമോ ഓക്കെ താങ്ക് യൂ